സ്പോർട്സ് കളിക്കുന്നതിലൂടെ കുട്ടികൾക്ക് പ്രധാനമായിട്ടും ശാരീക ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ്സാണ് കൂടുതലും കുട്ടികൾക്ക് ലഭ്യമാവുക അതോടൊപ്പം സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളിപ്പം സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഫോസ് സ്പോർട്സ് കളിക്കുന്നതിലൂടെ പല സമൂഹത്തിൽപ്പെട്ട പല വ്യക്തികളെ പല കു പല വീടുകളിൽ നിന്ന് കടന്നുവരുന്ന കുട്ടികളെ പരിചയപ്പെടാനും അവരോടെങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിലൂടെ അവർക്കൊരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ലഭിക്കുവാ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഇതിലൂടെ എങ്ങനെ എത്ത് ഏ സ്ട്രെസ്സ് അവോയ്ഡ് സ്ട്രെസ്സ് മാനേജ്മെൻറ്റിൻറ്റെ സ്കിൽസ് സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിലൂടെയെല്ലാം ഓരോ ത ഓരോ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്പോർട്സിലൂടെ അവര് സെലക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് അവരുടെ വ്യക്തിജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും അതോടൊപ്പം സ്പോർട്സിൻറ്റെ സെലക്ഷനിലൂടെയൊക്കെ മുതു മുതിർന്ന് വരുമ്പോഴത്തേക്ക് ജോബ് ഓരോ സ്ക്കൂള് തലത്തിലാണേലും ജില്ലാ തലത്തില് സംസ്ഥാനതലങ്ങളിലും ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ദേശീയതലത്തില് സെലക്റ്റ് ആകുവാനും അതോടൊപ്പം അവർക്ക് ജോലി സാധ്യത ഈ റെയിൽവേയിലും പോലീസിലും അങ്ങനെ ഉള്ള വിവിധ വിവിധ വിവിധ വകുപ്പുകളിൽ ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഡെഡികേറ്റഡായിട്ട് സ്പോർട്സിലേക്ക് തിരിയും തിരിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ഭാവിയില് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം മെയിനായിട്ട് ഇതെന്നെയാണ് അതായത് കുട്ടികൾക്ക് മെയിനായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സ് ഇന്നത്തെ തലമുറയില് കോ ഇപ്പം ഗ്രൗണ്ട്കളും സ്ഥലങ്ങളെല്ലാം പിള്ളേർക്ക് കളിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് അപ്പോൾ അത് അതു അതുമൂലം പിള്ളേര് ഈ മൊബൈൽ യൂസിലേക്കും ടാബ് യൂസിലേക്കും കടക്കുന്ന കാരണം ഒരുപാട് ഈ ബി വ്യക്തി ബിഹേവിയറിനകത്തൊരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികളില് അപ്പോൾ അത് അതൊക്കെ ഈ സ്പോർട്സ് നിരന്തരമായിപ്പം ക കളിക്കുന്നതില് നല്ലൊര് മാറ്റങ്ങൾ അതിലേക്ക് തിരിയാതെ അവർക്ക് നാ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും സ്പോർട്സ് അത്യന്താപേക്ഷിതം സ്പോർട്സിന് പിള്ളേർക്ക് അതായത് സ്പോർട്സ് കളിച്ച് കളിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റ് ഒരുപാട് സഹായങ്ങള് നൽകുന്നുണ്ട് ആ സ അതിലൂടെ അവർക്ക് മുന്നേറുവാൻ സാധിക്കും അതുപോലെതന്നെ മാനസിക സമ്മർദ്ദം പിള്ളേർക്ക് മാ മാറിക്കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം അത് അത് അതിലൂടെ ഈ സ്പോർട്സ് പിള്ളേർക്ക് ഒരുപാട് സഹായങ്ങ ഒരു സഹായങ്ങളാണ് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് ഒരു ഒരു ഒരു പി ഒരു പിരീഡ് ആക്ക്ച്വലി പി റ്റി ക്ലാസ് പി റ്റി അവേഴ്സ് എല്ലാ സ്കൂളിലും എല്ലാ ക്ലാസ്സുകളിലും ഒരു ഓരോ ഒരു ദിവസം പി റ്റി അവറൊണ്ട് ആ പി റ്റി അവറിലവർക്ക് അവരുടെ പി റ്റി സാറിനോടൊപ്പം വെളിയിൽപ്പോയി ആ ഒന്നെങ്കില് ബാസ്കറ്റ് ബോളോ ഫുട്ബോളോ വോളി ബോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെ കബഡി കളികള് അങ്ങനെ ഏതെങ്കിലും കളികളിലേർപ്പെടാനും അവർക്ക് അതിലൂടെ അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളോട് അവർക്ക് വളരെ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കും